കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ രീതികളാണ് നല്ല സൗകര്യമാണ് മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേണ്ട പ്രാഥമിക പിന്നെ ചികിത്സ നൽകാനും അത്യാഹിത വാർഡ് അതേപോലെ ആംബുലൻസ് സർവീസ് എല്ലാം ഉണ്ട് പക്ഷേ കുറച്ചുകൂടി ഫെസിലിറ്റി കുറച്ചുകൂടെ ആംബുലൻസ് സർവീസ് അതേപോലെ തന്നെ നമുക്ക് എത്താൻ ക്യാഷ്വാലിറ്റിയില് ഡോക്ടർ എപ്പോഴും ഡോക്ടർ ഉണ്ടാകുക ഒരു രണ്ട് ഡോക്ടറെ എങ്കിലും മിനിമം ഡ്യൂട്ടിയിൽ ഉണ്ടാവുകയാണെങ്കിൽ വരുന്ന വരുന്ന രോഗികൾ ഇങ്ങനെ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കും അപ്പോൾ കൂടുതല് കൂടുതല് അപ്പോയിന്റ്മെന്റ് പിന്നെ വേണ്ട മരുന്നുകളുടെ അതായത് നമ്മൾ കൂടുതല് പുറത്തോട്ട് എഴുതാതെ നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഉള്ള മരുന്ന് അവിടെത്തന്നെ കിട്ടുകയാണെങ്കിലും അതേപോലെത്തന്നെ നീതി സ്റ്റാൾ പോലത്തെയുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടുന്ന് നമുക്ക് വില കുറച്ചിട്ട് മരുന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം എല്ലാവർക്കും പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ സാധാരണക്കാരായ ഒത്തിരി പേര് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ശാരീരികമായിട്ട് സമാധാനം വീണ്ടെടുക്കാൻ ഒക്കെ പറ്റും ഈ കേരളത്തിലെ എല്ലാ രീതിയിലും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സൗകര്യങ്ങളെ കുറിച്ചും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട ഒരു ഫെസിലിറ്റീസ് വരുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും